പതിനേഴ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആറ് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പതിനാറ് പത്ത് രണ്ടായിരത്തി പതിനെട്ട് നാല് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുവതെ മൂന്നേ ആയിരത്തി തോന്നായിരത്തി തൊണ്ണൂറ്റി ഏഴ്